ഹലോ ആ ആ ഓക്കെ സർ ഞാന് ഒരു കാറിൻറെ ലോൺ എടുക്കാൻ വേണ്ടീട്ടാരുന്നേ അപ്പം നമുക്ക് ആനുവൽ ഇൻകം ഏകദേശം ഒരു നയൻ പോയിൻറ് ഫോർട്ടി ലാഖ്സ് വരുന്നുണ്ട് ആ അപ്പം നമുക്ക് കാറിനു ലോൺ കിട്ടുവോന്നറിയാൻ വേണ്ടീട്ടാരുന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് അപ്പോൾ ഞാന് അവിടുത്തെ ആ ഓക്കെ ഞാനിപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഞാന് കോൺട്രാക്ടർ ആണ് അപ്പോൾ ഓൾമോസ്റ്റ് അത്യാവശ്യം നമ്മള് ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്ന ഒരു ഒരിതാണ് ആർപി കൺസ്ട്രക്ഷൻസ് എന്നുപറയുന്ന ഒരിതാണ് നമ്മുടെ കമ്പനിയാണ് കമ്പനിയുടെ കോൺട്രാക്ടർ ആണ് ഞാൻ മ് ഓക്കെ നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് അങ്ങനെന്തേലും വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ചുചെയ്തുതരാൻ പറ്റുമോ മ് ഇറ്റ്സ് ഓക്കെ ഓക്കെ

ഓക്കെ മനസ്സിലായി മനസ്സിലായി

ഓക്കേ ഓക്കേ നമുക്കിപ്പം ഒരു ടാറ്റായുടെ ഹരിയർ എടുക്കണമെന്നാണ് ആ ഇപ്പം നമുക്കൊരു ട്വൻറി വൺ ലാഖ്സ് ഒക്കെയാണ് വരുന്നത് ഇല്ല നമക്കൊരു നമ്മളിപ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി പേഴ്സൻ്റെജ് എങ്കിലും നമ്മളതിൻറെ ഡൗൺ പേയ്മെൻറ് ഇടും ദെൻ ബാക്കിയൊരു പകുതിയേ നമുക്ക് ആ ആ

ഓക്കെ ഉണ്ടാവും അല്ലെ ഓക്കെ ഓക്കെ ഓക്കെ ആ ആന്നല്ലേ ഓക്കെ നമുക്കിപ്പോൾ ലോൺ സപ്പോസ് ഇതിനെന്തെങ്കിലും പ്രൂഫും കാര്യങ്ങളുമൊക്കെ എന്തൊക്കെയാണ് വേണ്ടത് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യണെമെങ്കിൽ ആ ഓക്കെ ഓക്കെ ഓക്കെ അക്കൗണ്ട് ഉള്ളതാണ്

ആ ഓക്കെ ഓക്കെ ബാങ്കിലേക്കെ വരുള്ളൂ അല്ലെ ആ

മ്ഹംഹം ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ സർ ഓ ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ സർ നാളെ ഞാനന്നാൽ ബാങ്കിലേക്ക് വരാം ഓക്കെ സർ ആയിക്കോട്ടെ